ജോലിസ്ഥലത്ത് അത്തരം പ്രശ്നങ്ങൾ എങ്ങാനും ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ആദ്യം ആ പ്രശ്നം ഉണ്ടാവാനുള്ള സാഹചര്യം പിന്നെ അത് എന്തുകൊണ്ട് അതങ്ങനെ ഒരു സംഘർഷത്തിലോട്ട് എത്തി അത് ആദ്യം മനസിലാക്കിയിട്ടേ എന്താണോ അതിൻ്റെ അടിത്തറ ഒരു എന്ത് ഇതിലൂടെയാണ് ഫസ്റ്റ് ആ ഒരു പ്രശ്നം തുടങ്ങിയത് അത് മനസിലാക്കിയിട്ട് അതിൻ്റെ ഒരു രീതിയാണ് ആദ്യം മനസിലാക്കണ്ടത് എന്നിട്ട് അതിനെ മനസിലാക്കി ആ ഒരു പ്രശ്നത്തിനുള്ള പോംവഴി എന്താണെന്ന് കണ്ടെത്തുകയും അതിന് പ്രശ്നം തുടങ്ങാനുണ്ടായ വ്യക്തികളും അതിനുണ്ടായ സാഹചര്യ ചുറ്റുപാടും എല്ലാം മനസിലാക്കി അവരെ ഇരുത്തി സംസാരിച്ചു നല്ല രീതിക്ക് അത് മനസിലാക്കി കൊടുത്തു ഇന്ന കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇത് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ ഒരു പ്രശ്നം ഇല്ലായ്മ ചെയ്യാനാണ് ഞാൻ അത് ശ്രമിക്കാറുള്ളത് പിന്നീട് അതൊരു ഇനിയൊരു പ്രശ്നത്തിലോട്ട് പോകാതിരിക്കാനുള്ള വഴിയും ആ സമയത്തു തന്നെ ഞാൻ എടുക്ക എടുക്കുന്നതാണ്